സാധാരണയായി പാടാനായി അങ്ങനെയൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സമയം ഞാൻ മാറ്റി വയ്ക്കാറില്ല എപ്പോഴും എൻ്റെ ചുണ്ടത്തൊരു പാട്ടെപ്പോഴും ഇങ്ങനെ തത്തിക്കളിച്ച് കൊണ്ടിരിക്കുന്നുണ്ടാകും ഞാൻ നടന്ന് നീങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവ്വഹിക്കുമ്പോളായിരിക്കും എപ്പോഴും ഒരു പാട്ടെൻ്റെ ചുണ്ടത്ത് ഉണ്ടായിരിക്കും അത് നമ്മുടെ ഒരു ക്യാരക്റ്ററാണ് എവിടെൻറ്റായി കാണിക്കുന്നത് ഓക്കേ നമുക്ക് സഹൃദയമായ ഒരു ഹൃദയമുണ്ടെങ്കിൽ സംഗീതം തനിയെ നമ്മുടെ ചുണ്ടുകളിലേക്കെത്തും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സംഗീതം തന്നെയാണ് ബേസിക് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരമ്പലം ഉണ്ട് അവിടെനിന്ന് രാവിലെ കേൾക്കുന്ന പാട്ട് തൊട്ടാണ് ഞാൻ എൻ്റെ ദിനചര്യ തുടങ്ങുന്നത് എപ്പോഴും ഫോണും എൻ്റെ ഹെഡ് ഫോൺസും എൻ്റെ കയ്യിലുണ്ടാകും എപ്പോഴൊക്കെ ഞാൻ ഡൗണായെന്ന് തോന്നുമ്പോൾ അപ്പോഴെല്ലാം ഞാൻ പാട്ട് കേൾക്കുന്നു കൂടെ പാടുന്നു പുതിയ സോങ്സ് അല്ലെങ്കിൽ പുതിയ ട്യൂൺസ് കമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പാട്ടുകൾ ഞാൻ കോമണായിട്ട് പഠിക്കുന്നത് കേട്ട് തന്നെയാണ് പഠിക്കുന്നത് എഴുതിപ്പഠിക്കുന്ന രീതി ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല ഒരുപാട് വട്ടം കേൾക്കും പല പോർഷൻസായി കേൾക്കും ആദ്യം പല്ലവി കേൾക്കും അനുപല്ലവി കേൾക്കും പിന്നീട് ചരണം കേൾക്കും തുണ്ട് പല്ലവി കേൾക്കും അങ്ങനെ കേൾക്കും ഹമ്മിങ് ഞാൻ ഏറ്റവും അവസാനമാണ് പഠിക്കുന്നത് ബിക്കോസ് ഹമ്മിങ്ങാണ് ഒരു പാട്ടിൻ്റെ ബേസിക്കായിട്ട് ആ ഒരു പാട്ടിൻ്റെ ഹമ്മിങ്ങുള്ള പാട്ടാണെങ്കിൽ അത് തുടങ്ങുമ്പോൾ ഹമ്മിങ്ങിലാണ് നമുക്ക് ജനങ്ങളെ വീഴ്ത്താനുള്ള ഒരു പവർ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഹമ്മിങ് ഡീറ്റൈൽലായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ അവസാനത്തേക്ക് മാറ്റി വയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സംഗീത പഠനം ഇങ്ങനെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാട്ട് പാട്ട് എഴുതി പഠിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് ഒരിക്കലും എഴുതി പഠിക്കുന്നത് കംഫർട്ടായിട്ട് തോന്നിയില്ല അതൊരു കോമ്പറ്റീഷന് വേണ്ടിയൊക്കെ അങ്ങനെ പഠിക്കും പാട്ടുകൾ മറക്കണം മറന്നിട്ട് നമ്മൾ അത് പിന്നീടത് ആലോചിച്ച് അല്ലെങ്കിൽ തനിയെ നമ്മുടെ ചുണ്ടിലേക്കത് വരും അങ്ങനെ നമ്മുടെ മൈൻഡിൽ സ്റ്റക്കാവുന്ന പാട്ടുകൾ ഒരിക്കലും മാറി പോകത്തില്ല മറന്ന് പോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കാരെ വേണമെങ്കിലും വെല്ലു വിളിക്കാൻ കഴിയും എന്നോട് പാട്ട് മത്സരം വയ്ക്കാൻ ആൻഡ് ദേ നെവർ ഗോണ ബീറ്റ് മി